പല പല നാട്ടുകളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ നമ്മള് വേറെ ഒരു ജില്ലക്ക് പോകുമ്പം ഇങ്ങനെ കമ്മ്യൂണിക്കേഷനില് ഭയങ്കര പ്രശ്നങ്ങള് തോന്നിയിട്ടുണ്ട് ഇപ്പം ഒരു കോഴിക്കോട് ഉള്ള ജില്ലയിലുള്ള ഒരാളോട് സംസാരിക്കുമ്പം ആളുടെ എന്താണ് സംസാരവും ചില വാക്കുകളും നമുക്ക് അങ്ങനെ ഒപ്പത്തിനൊപ്പം എത്താന് പറ്റണം എന്നില്ല എന്നാലും കുറച്ച് സമയം നമ്മള് അവരെ കേട്ടിരിക്കുകയാണെങ്കിൽ അവരെന്താ പറയുന്നതെന്ന് നമുക്ക് മനസിലാവും കൂടുതലും ഇപ്പോൾ നമ്മള് സംസാരിക്കുമ്പോൾ തന്നെ വേറൊരു നാട്ടിലേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മള് അവരുവായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജിനേക്കാളുപരി നമ്മളൊരു ഇമോഷൻസായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീല് ചെയ്തിട്ടുള്ളത് നമ്മള് ഓരോരോ ആക്ഷന്സ് നമ്മള് ചിലപ്പോൾ പറയണം എന്നില്ല നമ്മള് ചെയ്യുന്ന ഓരോ പ്രവര്ത്തികള് അവര്ക്ക് നമ്മള് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസിലാവും ഇപ്പം ഒരിക്കൽ സംസ്ഥാനത്തിൽ തന്നെ നമ്മള് വേറെ ജില്ലക്ക് പോകുമ്പം നമ്മള്ക്ക് ലാംഗ്വേജ് വലിയൊരു പ്രശ്നായിട്ട് വരാറുണ്ട് അപ്പം നമ്മള് വേറൊരു സംസ്ഥാനത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പം നമ്മള് കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാന് അപ്പോൾ ഞാന് ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ എന്താണ് ഞങ്ങളുടെ ലാംഗ്വേജ് തമ്മില് കുറെ സാമ്യമുണ്ട് കുറെ കഴിയുന്ന സിമിലര് സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആകണമെങ്കിൽ തന്നെ എന്താണ് അവരുടെ ചില ലാ സംഭവങ്ങള് നമുക്ക് മനസിലാവണം എന്നില്ല പെട്ട് നമ്മളൊന്ന് അവര് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു കേള്ക്കുവാണെങ്കിൽ അവരുടെ നമ്മള് ഇപ്പം സംസാരിക്കാന് നമ്മുടെ വാക്കുകള് മാത്രമല്ല നമ്മുടെ ഇമോഷന്സ് നമ്മുടെ ചിന്ത നമ്മുടെ ഇമോഷന്സ് നമ്മുടെ ആക്ഷന്സ് നമ്മള് പറയുന്ന ഓരോ കാര്യത്തിലും നമ്മളെ ഇന്ഫ്ലുവന്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മള് സംസാരിക്കുന്നതെന്താണ് ഒരാള് സംസാരിക്കുമ്പോള് ആ വാക്കുകള് മാത്രല്ല നമ്മള് കേള്ക്കുന്നത് അയാളുടെ ഓരോരോ കണ്ണുകളിലും അയാളുടെ ചുണ്ടുകളില് നിന്ന് തന്നെ അയാള് എന്താ പറയുന്നതെന്ന് നമുക്ക് കേട്ട് മനസിലാക്കാൻ പറ്റും അങ്ങനെയിപ്പം പക്ഷെ നമ്മള് വേറൊരു രാജ്യത്തേക്ക് പോകുകായാണെങ്കില് കൂടി നമ്മള് കോമണ് ആയിട്ട് ഉപയോഗിക്കുന്നൊരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സൊ നമ്മളേതൊരു സിറ്റുവേഷനില് ചെന്നാലും കുറച്ച് ഇംഗ്ലീഷ് കുറച്ച് മലയാളം അങ്ങനെ കുറച്ച് കുറച്ച് നമുക്ക് അറിയുന്ന വിധത്തില് ഇനി ഇംഗ്ലീഷ് അറിയാത്ത ഒരു നാട്ടിലാണ് നമ്മളെത്തി ചെല്ലും എത്തിപ്പെടുന്നത് എങ്കില് എങ്ങനെയാണ് എന്ന് വെച്ചാലെന്താണ് നമ്മള് ജസ്റ്റ് ആക്ഷന് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മോസ്റ്റ് ബേസിക്കലി നമ്മള് വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന ആളോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ എന്താണ് നമ്മളെന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസിലാക്കാം നമ്മള് വളരെ ഓപ്പണ് മൈന്ഡഡായിട്ടുള്ള ഒരു പെർസൺ ആണ് നമുക്ക് കുറച്ച് ടൈമ് വേറൊരാള്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുവെങ്കിൽ നമ്മളൊരിക്കലും പേടിക്കേണ്ട ഏത് സിറ്റുവേഷനിലാണ് എവിടെയാണ് നമ്മള് ട്രാവൽ ചെയ്യുന്നത് എങ്കിലും നമുക്ക് ഒരു വാക്കും കേള്ക്കാന് കഴിയാത്തൊരു സിറ്റുവേഷന് ആണെങ്കിൽ തന്നെ നമുക്ക് സംസാരിക്കാന് പറ്റുന്ന എനിക്ക് ഉറപ്പായും ഞാനിങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് ഇന്ഫ്ലുവന്സോ അങ്ങനെ ഓരോ സിറ്റുവേഷന്സിലും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മള് കുറെ പേരുടെ ലൈഫ് എക്സ്പീരിയന്സ് കേൾക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം രണ്ട് രണ്ടു രണ്ടുപേര് രണ്ട് ഭാഷ സംസാരിക്കുന്നവരാണെന്ന് വെച്ചോ പക്ഷെ അവര്ക്ക് ഒന്നുവില്ലെങ്കിൽ തന്നെ ബേസിക് നീഡ്സ് തന്നെ അവര്ക്ക് എങ്ങനെയാണ് ജസ്റ്റ് കുറച്ച് നേരം ടൈം സ്പെന്ഡ് ചെയ്താല് പരസ്പരം മനസിലാകുന്ന ഒരു സിറ്റുവേഷനാണ്